സർ എൻ്റെ രണ്ട് മക്കൾക്ക് വേണ്ടിട്ടാണ് എൽ കെ ജി പഠിക്കുന്ന ഒരു കുട്ടിക്കും രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്കും വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൻ്റെ ഒന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു അതിൻ്റെ ഒരു അതെ ഡൊണേഷൻ എത്ര ആകുമെന്നും ഫീസ് എത്ര ആകുമെന്നും പിന്നെ ബസ് ചാർജും ഒക്കെ എത്ര ആകുമെന്നും പറയണം സ്ഥലം മീനങ്ങാടി അ എൽ കെ ജി പഠിക്കുന്ന കുട്ടിക്കും എൽ കെ ജി ചേർക്കണം അ പിന്നെ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്കും

ഒരു കുട്ടിക്ക് ഇരുപത്തിയയ്യായിരം ഒരു വർഷത്തേക്ക്

ആയിക്കോട്ടെ എത്രയും പെട്ടെന്ന്